കൊലാപ്പൂരി ചപ്പലുകൾ പോലെ തന്നെ കേരളത്തിലൂടെ നിർമ്മിച്ച നിരവധി തദ്ദേശീയ ഉൽപന്നങ്ങളും പ്രശസ്തമാണ് പ്രത്യേകിച്ച് കേരളത്തിന്റെ വൈവിധ്യമാർന്ന കരകൗശല പാരമ്പര്യത്തിൽ നിന്നും അത്തരമുൽപ്പന്നങ്ങളുണ്ടാക്കാൻ കഴിയും ഉദാഹരണത്തിന് കൊയ്തങ്ങളുപയോഗിച്ചുണ്ടാക്കുന്ന ചപ്പലുകൾ തോണികൾ കെട്ടുകളും വളരെ പ്രശസ്തമാണ് കൂടാതെ കൈത്തറി കൈത്തറി വസ്ത്രങ്ങളും മുണ്ടുകളും തനതായ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾക്കായി വിപുലമായ മാർക്കറ്റുകളുണ്ട് ഈ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് നമുക്കും നമ്മുടെ സംസ്ഥാനത്തിനും മികച്ചൊരു പ്രതിച്ഛായ സൃഷ്ടിക്കാൻ കഴിയും